തീർച്ചയായും ഇപ്പോഴൊന്നും അല്ല കുറേക്കാലം മുമ്പ് ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടുണ്ട് ഇഷ്ടമായിരുന്നു ഡ്രോയിങ് നമുക്ക് ഡ്രോയിങ് പഠിക്കുന്ന നല്ലതാണല്ലോ ഡ്രോയിങിൻ്റെ ബെയിസെന്താണെന്ന് പഠിക്കുന്നത് നല്ലതാണല്ലോ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടുണ്ട് ഇപ്പോഴല്ല കുറേക്കാലങ്ങൾക്ക് മുമ്പ് പക്ഷേ നല്ല രീതിയിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴൊന്നുമല്ല കാലം കുറേയായി ഇപ്പോഴും ഓർമ്മയുണ്ട് കൊച്ചുമക്കളൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ ഇപ്പം നമുക്ക് ഒരു എ ഫോർ ഷീറ്റ് കിട്ടിയാൽ കുറച്ച് കളറോ ക്രയോൺസൊക്കെ കിട്ടിയാൽ ഇപ്പോഴും വരയ്ക്കും ഏ അതൊക്കെ ഒരു അനുഭവം ഇപ്പോഴൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് നമ്മുടെ മനസ്സിലെന്നും മായാതെ നിൽക്കുന്ന ഓരോ മെമ്മറികൾ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് കോംബറ്റീഷൻ ഉണ്ടാകുമായിരുന്നു പണ്ടുകാലത്ത് ഇപ്പോഴൊന്നുമല്ല ഒരു രണ്ടായിരത്തി എട് ആറ് അഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഡ്രോയിങ് കോംബറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ പോകുമായിരുന്നു ഒത്തിരി ഒത്തിരി പഴക്കമുണ്ട് ഇപ്പോഴൊന്നുമല്ല ഇപ്പോഴത്തെക്കാലത്ത് എങ്ങനെയാണ് ഡ്രോയിങിനെക്കുറിച്ച് അതറിയില്ല ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഡ്രോയിങിന് പോകുമായിരുന്നു ഓരോ സ്കൂളുകളിൽ ഡ്രോയിങ് കോംബറ്റീഷൻ വെയ്ക്കുമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അന്നൊക്കെ